അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് നാല് രണ്ടായിരത്തി പത്ത് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് നാല് രണ്ടായിരത്തി ഒന്ന്